ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരനാണ് വിധുപ്രതാപ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ഉത്സവുമായി ബന്ധപ്പെട്ട് ഗാനമേള അവതരിപ്പിക്കാൻ വന്നതായിരുന്നു അവിടെ വച്ചാണ് ഞാൻ വിധുപ്രതാപിനെ കണ്ടത് അയാളുടെ പാട്ടുകൾ നേരിട്ട് കേൾക്കാൻ സാധിച്ചത് ഇനി എനിക്ക് കാണാൻ താല്പര്യമുള്ള പാട്ടുകാരനെന്നു പറയുന്നത് നമ്മുടെ ഗാന ഗന്ധർവ്വൻ കെ ജെ യേശുദാസ് സാറിനെ ആണ് സാറിൻ്റെ ശബ്ദത്തിൽ നിന്ന് നേരിട്ട് പാട്ടുകൾ കേൾക്കാൻ കഴിയുക എന്നു പറയുന്നതുതന്നെ ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടുതന്നെയാണ് ഞാൻ യേശുദാസ് സാറിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് സാറിൻ്റെ പാട്ടുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കെ ജെ യേശുദാസ് സാറിനെ നേരിട്ടു കാണുക സാർ പാടുന്ന പാട്ടുകൾ നേരിട്ട് കേൾക്കാൻ കഴിയുക എന്നുപറയുന്നത് ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്